പരിവാഹൻ സേവാ ഹെൽപ്പ് ഡെസ്ക് അല്ലെ എനിക്ക് ഒരു പുതിയ ഒരു ഒര് ഒരു സ്കൂട്ടർ വാങ്ങുകയാ വാങ്ങാനുണ്ട് അതിന് റജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് കൂടുതലറിയാൻ ഉണ്ട് അപേക്ഷ അതിൻ്റെ അപേക്ഷ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അത് റജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാനെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഒര് നിർദ്ദേശം തരാമോ വാഹനം പഴയ പഴയ വാഹനമാണ് അത് അതിനെ കുറിച്ച് റജിസ്റ്റർ ചെയ്യാൻ അങ്ങനെ റെജിസ്റ്റർ ചെയ്യാനെനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്